ഹലോ ഹ ഹലോ ആ കേൾക്കുന്നുണ്ട് കേൾക്കുന്നുണ്ട് ആ ഞാൻ പിള്ളേരെ ചേർക്കാൻ വേണ്ടിയിട്ടായിരുന്നേ എൽ കെ ജിയും രണ്ടാം ക്ലാസിലേക്കുള്ളത് വേണ്ടിയിട്ടായിരുന്നു

ആ ആ ആ അത് കൊടുക്കുക ഹ്മ് ഹ്മ് ഹ്മ്

ആ ആ ആ ആ അല്ല അപ്പോൾ ഡൊണേഷൻ പിന്നെ ആദ്യം തന്നിട്ട് പിന്നെ ട്യൂഷൻ ഫീസ് പിന്നെ അടച്ചാൽ പോരേ ഇല്ല അല്ലേ ആ ഇത് കൊണ്ടുവിടാം ഒരു ഫസ്റ്റ് ഒരു വർഷത്തോളം കൊണ്ടുവിടാം പിന്നെ ബസ്സിലേക്ക് മെല്ലെ ആക്കാമെന്ന് വിചാരിച്ചിട്ടായിരുന്നു ആ ഇല്ല യൂണിഫോം ഒക്കെ ഇപ്പോൾ നമ്മൾ സ്കൂളിൽ നിന്നുതമന്നെ തരലാണോ നമ്മൾ മേടിക്കലാണോ പുറത്തുനിന്ന് ആ ഓക്കെ ഓക്കെ ആ ഓക്കെ വിളിച്ചേക്കാം താങ്ക് യൂ സാർ